ആ ഹലോ ആ എന്തായി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയോ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ഓക്കെ അത് എന്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ടീം മാനേജറും കാര്യങ്ങളൊക്കെയുണ്ടോ അവരെ വർക്കിങ്ങൊക്കെ വർക്കിങ് ടൈമും ഓവർ ലോഡിങ് സ്ട്രസ്സും കാര്യങ്ങളും ഓക്കെ അപ്പം അടുത്ത അടുത്ത

ഇപ്പോൾ നമ്മുടെ ലോ വർക്കിംഗ് ലോഡൊക്കെ നല്ല ഹെവിയാണോ അതോ അതേപോലെ തന്നെ നമുക്ക് ഇവർ ഇത്രയും എംപ്ലോ എംപ്ലോയിസിനെയും കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ

ആ അത് നമുക്ക് ആ അപ്പോൾ ഈസി ആക്കണെങ്കിൽ നമുക്ക് വേണങ്കിൽ നമുക്ക് നോക്കാം കുറെ പുതിയ എംപ്ലോയീസ് നമ്മുടെ വേറെ ആൾക്കാരൊക്കെ ഇമ്പ്രൂവ് എടുക്കാവുന്നതാണ് ആണോ ഓക്കെ അടുത്ത പരിപാടി പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേറെ ഒരു പു പുതിയ പ്രോജക്റ്റും കൂടി അതിൻ്റെയൊപ്പം വരുന്നത് വേറെ

ഇതിന് ഇൻറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇൻറ്റേൺസും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടോ ഇൻ്റ ഓക്കെ അത് ഇനീ നെക്സ്റ്റ് പ്രോജക്ട് ഈ ആ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്തായാലും നമുക്ക് നോക്കാം പുതിയ ഇൻറ്റേൺസും കാര്യങ്ങളും ആൾക്കാരെ വെച്ചിട്ട് നമുക്കിനി എക്സ്ട്രാ ആയിട്ട് ടീം മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഒന്നും കൂടി ഇതാക്കാം ഇപ്പോൾ ഈ പ്രൊജക്റ്റ് പോകുന്ന വഴിക്ക് സെറ്റാവട്ടെ

ആ ഇനി അത് ലോഡ് കൊടുക്കണ്ട എന്തായാലും ആ ആ ശരി